ഇപ്പം ഞാനെന്താ പറയുക ഇപ്പം ഞാനൊരു ഫോട്ടോയെടുത്തു ആ ഫോട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും മറ്റൊരാളെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ ശ്രമിപ്പിക്കും എന്നിട്ടിപ്പം നമ്മൾ ഇപ്പം നമുക്കിന്നു മെയിനാണ് എങ്കിൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നു പോസ്റ്റിടുന്നു പോസ്റ്റിട്ട് ലൈക്ക് കൂട്ടുന്നു ഓരോരുത്തർ അതിനു വേണ്ടി ഇടക്ക് കമന്റിടുന്നു അങ്ങനെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ചോദിക്കുന്നു എങ്ങനെ ഇതെടുത്തു ക്യാമറയിലാണോ എടുത്തത് എവിടെ പോയാണ് എടുത്തത് അങ്ങനെ പല കാര്യങ്ങളും ചോയിക്കുന്നു ഇപ്പം വാട്ട് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എവിടെ വേണമെങ്കിലും ഇപ്പം വാട്ട്സപ്പിൽ സ്റ്റോറി ഇടാം ഡി പി ഇടാം സ്റ്റാറ്റസ് ഇടാം ആൾക്കാർക്കയച്ച് കൊടുക്കാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും മറ്റേത് ആൾക്കാർ കണ്ട് ഇപ്പം നമ്മുടെ ബെർത്തഡേ ആണെങ്കിൽ ആൾക്കാർ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെടുത്ത് അത് ക്രോപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്താണ് അങ്ങനേ ചെയ്ത് നമുക്ക് വിഷ് വിഷ് ചെയ്ത് തരുന്നു ഇപ്പം ഹാപ്പി ബർത്ത്ഡേ മോനു അങ്ങനെ അങ്ങനെയൊക്കെ അയക്കുന്നു അതുപോലെയാണ് ഇപ്പം നമ്മളിപ്പം അറിയപ്പെടുന്ന അറിയപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു ഇന്സ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു അപ്പം നമ്മളെ എല്ലാവരും ആ സ്റ്റോറി മാത്രം കാണത്തുള്ളു അല്ലാതെ മെസ്സ് ചിലവർ അങ്ങനെ മെസ്സേജയക്കുമായിരിക്കും പക്ഷെ സ്റ്റോറി ഇടുമ്പം എല്ലാവരും കാണുന്നു വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പം എല്ലാവരും കാണുന്നു ചിലവർ മെസ്സേജയക്കുമായിരിക്കും ചിലർ മെസ്സേജയക്കത്തില്ലായിരിക്കും ഇപ്പം എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമാണ് ഇൻറ്റാഗ്രാമിൽ വാട്ട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയോ അങ്ങനെ ഇടാറില്ല എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ഇടക്ക് ഇടക്ക് മാസത്തിൽ രണ്ട് മൂന്ന് തവണ എങ്കിലും ഇടക്ക് ഒരാഴ്ച കുടുംബം സ്റ്റോറി ഇടും ആൾക്കാരെ മെൻഷൻ ചെയ്യുന്നു സ്റ്റോറി ഇട്ട് കഴിയുമ്പം അതിന് പോസ്റ്റിൻ്റവിടെ ടാഗ് ചെയ്യുന്നു ആൾക്കാരെ മെൻഷൻ ചെയ്യുന്നു സ്റ്റോർ അവരെന്നിട്ടത് ടാഗ് ചെയ്യുന്നു സ്റ്റോറി ഇടുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം നല്ലൊരു ഫോട്ടോ ആണെങ്കിൽ എല്ലാവരും ചോദിക്കും ഇപ്പം കൊ എന്നാ എടാ ടാഗ് ചെയ്യടാ അങ്ങനെ ചെയ്യടാ ഇ ഇങ്ങനെ ചെയ്യട എന്നൊക്കെ നമുക്കൊരു പ്രോത്സാഹനം കിട്ടും അവർ നമുക്ക് കിട്ടുമ്പോൾ ഒരാത്മവിശ്വാസം നമുക്ക് ഇനിയും നല്ലതാണെന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്കും ഇനിയെടുക്കാൻ ഒരു ആത്മ വിശ്വാസം ഉണ്ടാകും അങ്ങനെ നമുക്ക് നമ്മളോട് ചോദിക്കുന്നവരെ എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കുന്നു കൊടുക്കുന്നു ആൾക്കാർ ചോദിക്കുമല്ലോ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പം അവർ എങ്ങനെ എടുത്തുവെന്ന് എങ്ങനെ എടുത്തു എവിടുന്നെടുത്തു ഏതു ഫോൺ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം നമ്മളും ചോദിക്കുന്ന ആൾക്കാർക്കും നമ്മൾ എടുത്ത് കൊടുക്കാൻ ശ്രമിപ്പിക്കാൻ ശ്രമിക്കണം എനിക്കങ്ങനെ ഒത്തിരി നല്ല കാര്യങ് നല്ല ഫോട്ടോസുണ്ട് എന്നാലും പ്രധാനപ്പെട്ടത് പാറം പറയുമ്പം നമ്മൾ എന്താ പറയുക ഒത്തിരി ഫോട്ടോ എടുക്കാം അതുപോലെ ഒന്നാണ് ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി ഇടാം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇപ്പം എല്ലാവരും പ്രായം കൂടിയ ആൾക്കാർ തന്നെയാണ് ഫേസ്ബുക്കിൽ തുടരുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ തുടരുമ്പം എന്താ പറയുക പ്രായ ആൾക്കാർ ഒത്തിരി തന്നെ ഉണ്ട് നമ്മളെ കണ്ടിട്ടില്ലാത്തവർ പോലും അത് സ്റ്റോറി കാണുന്നു എന്നാ അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുന്നു സാധാരണകാ അപ്പുപ്പന്മാരൊക്കെ ആണെങ്കിൽ പോലും പ്രായം ആയുള്ളൊരു കാര്യം ചേച്ചിമാർ അമ്മച്ചിമാർ എല്ലാവരും തന്നെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒക്കെ ഇടും ഒരു സ്മൈൽ പോലെ സ്മൈലി എങ്കിലും ഇടും അത് ഇൻസ്റ്റാഗ്രാമിലും ഇടാന് പറ്റും വാട്ട്സപ്പിലിടാൻ പറ്റും വാട്ട്സപ്പിൽ നമ്മൾ ഒരു മാസം പോലും നമ്മൾ മെസ്സേജ് അയക്കാത്ത ആൾക്കാർ നമ്മളുടെ സ്റ്റോറി ഇടുമ്പം നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നു നീ ഇപ്പം എവിടെയാണ് എന്നാടാ എങ്ങനെയാണ് പരിപാടി എന്നാ ഒക്കെയുണ്ട് വിശേഷം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും സുഖം ആണോ നീയിപ്പം എന്താ പഠിക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കും അങ്ങനെ ഇന്സ്റ്റഗ്രാമും ആയിട്ടൊത്തിരി ഇൻസ്റ്റഗ്രാമിലും അതു പോലെ തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ഇല്ലാത്തവരായിരിക്കും ഇൻസ്റ്റാഗ്രാമില് നമുക്ക് ഇതുള്ളത്